ഞാന് സ്കൂളിൽ പോയിരുന്ന കാലത്തൊക്കെ ഞാന് നടന്നിട്ടാണ് പോയിരുന്നത് പിന്നെ ഒരു കിലോമീറ്റാറൊക്കെ നടന്നാണ് സ്കൂളീൽ പോയിരുന്നത് ഇന്ന് ആ സമയത്തൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ ചെറിയ ദൂരം ഉള്ളെങ്കിലും വണ്ടിയിലൊക്കെ പോവും അന്നത്ര വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏത് സ്കൂളിലായാലും മദ്രസയിലായാലുമൊക്കെ നമ്മൾ നടന്നുകൊണ്ട് തന്നെയാണ് പോവുക യാത്രാസൗകര്യം ഇത്ര കൂടുതലുള്ള കാലമൊന്നുമല്ല അരമണിക്കൂറ് അല്ലെങ്കില് മുക്കാൽ മണിക്കൂറൊക്കെ ഇടവിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടൊക്കെ ബസ് ഉണ്ടായിരുന്നത് അപ്പം ആ ബസിന് നമ്മൾ കാത്ത് നിൽക്കണം സ്കൂളും മദ്രസയിൽ നിന്നും ബസ്സില് പോകേണ്ട ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് നടന്നാണ് പോയിരുന്നത് പിന്നെ എന്നുണ്ടെങ്കിൽ ദൂരെ സ്ഥലത്തൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇന്ന സമയത്ത് ഒര് പന്ത്രണ്ടരക്ക് ബസ്സുടെന്ന് ആദ്യമേ അറിയാമല്ലൊ അപ്പോൾ അതിന് അനുസരിച്ച് ഒരുങ്ങിട്ടൊക്കെ പോയിരുന്നു സമയം കാത്ത് നിന്ന് ആ ബസ്സില്ലെങ്കിൽ പിന്നര മണിക്കൂറ് കൂടെ കാത്ത് നിൽക്കണം ഇന്ന് ഇപ്പോൾ അങ്ങേയൊന്നുമല്ല അഞ്ച് മിന്റ്റ് പത്ത് മിന്റ്റിൻ്റെ ഉള്ളിലൊക്കെ ബസ്സ്ണ്ട് ബസ് സർവീസാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചെങ്കിൽ തന്നെ പിന്നെ അധികം പേർക്കും ഇപ്പോൾ ഒരു ടൂവീലറെങ്കിലും ഇല്ലാത്ത ആളുകളില്ല അപ്പോൾ അവർക്ക് യാത്രാ സൗകര്യമൊക്കെ എളുപ്പമാണ് നമ്മള് നമുക്കാവശ്യള്ള സമയത്ത് തന്നെ പോകാൻ പറ്റും പണ്ടുകാലത്ത് അതൊന്നും പറ്റില്ല ബസ്സ് വരുന്ന സമയം നോക്കിയിട്ട് നമ്മള് കാത്ത് നിൽക്കേണ്ടി വരും പിന്നേ ഇത്ര കൂടുതല് ബസ്സുകളൊന്നും ഉണ്ടായിട്ടിരുന്നില്ല സ്കൂളിയാലും മദ്രസിയിലായാലും പോകാനും ഒക്കെ നടന്ന് പോകാൻ ഏകദേശം ഒരുവിധം ദൂരങ്ങളൊക്കെ അന്ന് നടന്ന് പോകലാണ് രണ്ട് മൂന്നും കിലോമീറ്ററൊക്കെ നടന്ന് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഒക്കെ പോയിരുന്നു ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഒന്നെങ്കിൽ ബസ്സ് ഉപയോഗിക്കും അല്ലെങ്കില് ഓട്ടോ സൗകര്യങ്ങള് ഉണ്ട് പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ വണ്ടി ഉണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആളുകള് പോകുന്നത് അന്നൊക്കെ കുറച്ച് ദൂരയൊക്കെ നടന്ന് കുറെ ആളുകള് നടന്ന് പോയിരുന്നതും ഈ കടയിലേക്ക് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാനൊക്കെ ആണെങ്കിലും നമ്മൾ നടന്നാണ് പോയിരുന്നത് ഇന്ന് കുറച്ച് ഒരു ദുരമാണെങ്കിൽപോലും നമുക്ക് നടക്കാൻ മടിയാണ് നമ്മൾ ബസുപയോഗിക്കുക ഇല്ലേൽ വണ്ടിയോ അല്ലെങ്കില് ഓട്ടോറിക്ഷയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോകുക ബസ്സില് പോകുന്ന സ്ഥലത്തൊക്കെ ബസ്സില് പോകും പിന്നെ ബസിപ്പോൾ എപ്പഴും കിട്ടാനുണ്ട് അന്നൊന്നും ഇത്ര ബസ്സും ഇല്ല ഒര് മണിക്കൂറ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഗ്യാപ്പിലൊക്കെ ബസ്സ് ഉണ്ടാകും ആ ബസ്സ് കാത്ത് നിന്ന് അങ്ങനൊക്കെ പോകണ്ടേ ഇന്നിപ്പോൾ നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ബസ് അഞ്ച് മിന്റ്റ് ഗ്യാപ്പിൽ അല്ലെങ്കില് ഒര് പത്ത് മിനിറ്റിൻ്റെ ഇടയിലൊക്കെ ബസ് വരാറുണ്ട് അങ്ങനെ പോകാം ഇനി അതല്ലെങ്കില് നമ്മളുടെ വീട്ടിലുള്ള വണ്ടിയിൽ അങ്ങനെ പോകാം അല്ലെങ്കില് ഓട്ടോ വിളിച്ചിട്ടോ കാറോ അങ്ങനൊക്കെ വിളിക്കാം അന്ന് ഇത്രയ്ക്ക് ഒന്നും ആദ്യ കാലത്തൊന്നും ഇത്രയും ബസ്സും ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൂടുതല് ആളുകളും നടന്ന് തന്നെയാണ് പോയിരുന്നത് അധിക സ്ഥലത്തേക്കും കുറച്ചൊക്കെ ദൂരമുള്ളിടത്തേയ്ക്ക് മാത്രമെ അന്ന് ബസിനെ ആശ്രയിക്കുകയുള്ളൂ അല്ലെങ്കില് ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഓട്ടോറിക്ഷ ഉണ്ടായതിന് ശേഷം പിന്നെ കുറെയൊക്കെ ആളുകള് ഓട്ടോറിക്ഷയ്ക്ക് ഉപയോഗിക്കല് തുടങ്ങി അതിൻ്റെ മുന്നെ ഒക്കെ ഒരു പരിധി വരെ ഒക്കെ നടന്ന് തന്നെയാണ് പോയിരുന്നത് പിന്നെ ബസ്സിന് പോകാം പിന്നെ സ്വന്തം ബസ് ജീപ്പ് അങ്ങനത്തെ ഒക്കെ കാറിലൊക്കെ അന്നത്തെ കാലത്ത് കൂടുതല് ജീപ്പായിരുന്നു ജീപ്പിലൊക്കെ പോകും കുറെ ആളുകളെ കൊള്ളോലോ ജീപ്പിലായാലും ആ വിളിച്ച് പോകുന്ന ബസ്സില്ലാത്ത സർവ്വീസില്ലാതൊക്കെ ഉണ്ടായിരുന്നു ഞാനെൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്ന കാലത്ത് അവിടേയ്ക്ക് ബസ്സൊന്നും ഇല്ല അവിടെങ്ങനെ വിളിച്ച് പോകുന്ന ജീപ്പാണ് നമ്മൾ സ്ഥലത്ത് നിന്ന് ആ ജീപ്പില് കയറിയിട്ട് നമ്മക്കെറങ്ങാനുള്ളോടത്ത് അന്നൊക്കെ രണ്ട് രൂപയൊക്കെ കൊടുത്തലൊക്കെ ഇറങ്ങാൻ പറ്റും പോകാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെ ജീപ്പില് പോകേണ്ടി വരും പിന്നെ കുറേകാലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടൊക്കെ ബസ്സൊക്കെ വന്നത് ബസ്സ് വന്നതിൽ പിന്നെ ഒന്നൊക്കെ ഒന്ന് രണ്ട് ബസ്സൊക്കെ ഉള്ളായിരുന്നു ആദ്യം ആ ബസ്സില് ഒര് നാട്ടിലുള്ള എല്ലാ ആളുകളും എല്ലാം കേ അതിൽ കയറും കോഴിയും അങ്ങനത്തെ പച്ചക്കറി സാധനമൊക്കെ ചന്തയില് കൊണ്ടുപോകാനുള്ളത് ആയാലും യാത്ര പോകണമെങ്കിലും വിരുന്നു പോകണമെങ്കിലും അങ്ങനത്തേതിലൊക്കെ അതില് കയറിയിട്ടാണ് അതിന് പോയിരുന്നത് ഇപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ബസ്സുണ്ട് അധികം ആളുകൾക്കും നമുക്ക് തന്നെ സ്വന്തം വാഹനമൊക്കെ ഉള്ളത് കൊണ്ട് ബസ്സിനായാലും ജീപ്പൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല അപ്പോൾ മ്മള് ള്ള നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളവിടെ പോകുന്ന രീതിയിലായി കുറെ മാറ്റങ്ങള് അങ്ങനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ നടത്തമൊക്കെ കുറെ കുറഞ്ഞു പണ്ട് ആളുകള് ഓരോ സ്ഥലത്ത്ക്ക് ഇപ്പോൾ നടന്ന് പോയിരുന്നു ഇന്നിപ്പോൾ ബസ്സൊക്കെയായപ്പോൾ അത് ഉപയോഗിക്കൽ തുടങ്ങി പണ്ട് ബസ്സിനൊക്കെ പകരം കാളവണ്ടിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു ചരക്ക് കൊണ്ടുപോകാനും ആളുകൾക്ക് യാത്ര ചെയ്യാനുമൊക്കെ കാളവണ്ടിയിലൊക്കെ പോയതൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനൊക്കെ ആകുമ്പോൾ പിന്നെ അതൊന്നും ഇല്ല എൻ്റെ പ്രായത്തിലൊക്കെ കാള വണ്ടിയിലും പിന്നേ സാധനങ്ങള് കൊണ്ടുപോകാൻ ചന്തയ്ക്ക് സാധനങ്ങള് ഒക്കെ കൊണ്ടുപോകുന്നത് കൂടുതലും അതിലായിരുന്നു കാളവണ്ടി കൊണ്ടുപോകുക അല്ലെങ്കില് നമ്മൾ കയറ്റി കൊണ്ടുപോകുക കോട്ടയിലൊക്കെ വെച്ച് കയറ്റി കൊണ്ടുപോകുക ഒക്കെയാണ് ചെയ്തിരുന്നത് പിന്നെ അതൊക്കെ ജീപ്പൊക്കെ വന്നപ്പോൾ ജീപ്പിലായി പിന്നെ ബസ്സ് വരുമ്പോൾ ബസ്സിൻ്റെ മുകളിൽ ഇട്ട് കൊണ്ടുപോകലായി ബസ്സിൻ്റെ ഉള്ളില് പറ്റുന്നതൊക്കെ ഉളളിലാക്കി അങ്ങനെ ഒക്കെയായി ഓരോ കാലത്തെയും മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ യാത്ര ആളുകളൊക്കെ ചെയ്തിരുന്നു അത് ഇപ്പം നമ്മളാവശ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടില് വണ്ടി ഉണ്ടെങ്കിൽ പെട്ടന്ന് നമുക്ക് പോകാൻ പറ്റും അന്ന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഏത് സമയത്താണ് ബസ്സ് വരുന്നതെന്ന് അനുസരിച്ച് ആ സമയം കാത്ത് നിന്ന് അതിൽ കയറി പോകേണ്ടിയിരുന്നു അല്ലെങ്കിൽ പിന്നെ ജീപ്പോ കാറോ ഒക്കെ വിളിച്ച് പോകാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മളാവശ്യപ്പെടുന്ന നേരത്ത് വിളിച്ചുകൊണ്ട് അങ്ങനെ പോകുമായിരുന്നു ഇപ്പോൾ ബസ്സ് സകര്യവും യാത്രാ സകര്യവുമൊക്കെ കൂടിയത് കൊണ്ട് എങ്ങോട്ടും പോകാനും എത്ര പെട്ടെന്ന് എത്താനുമൊക്കെ ആയി ആദ്യ കാലത്തൊക്കെ എങ്ങോട്ടെങ്കിലും ഒര് സ്ഥലത്ത് എത്തണമെങ്കില് രണ്ട് മണിക്കോ നമ്മള് എത്തണെങ്കില് വീട്ടിൽ നിന്ന് നമ്മള് ഒരു പത്തു മണിക്കെങ്കിലും ഇറങ്ങി പോകേണ്ടി ഇരുന്നു ഇപ്പോൾ അതൊന്നും വേണ്ട പത്തുമിനിറ്റിനുള്ളില് നമുക്കെത്താൻ പറ്റും അത്രയും സൗകര്യങ്ങളായി പണ്ടാണെങ്കിൽ ഒരു ജീപ്പും അങ്ങനൊക്കെ വരുമ്പോൾ അതിൽ കാത്ത് നിന്ന് അതിൽ ബാക്കി ഉള്ളവരൊക്കെ കയറി ഇന്ന സ്ഥലത്ത് എത്തി കയറി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് പോകാനുണ്ടാകും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തണമെങ്കില് അങ്ങനെ ഒക്കെ ആയി അവിടെ എത്തുമ്പോളേതെന് കുറെ സമയമൊക്കെ ആകും പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമുക്കവിടെ എത്താൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ എത്തി പെട്ടെന്ന് കാറായാലും ബസ്സാണെങ്കിലും ഫാസ്റ്റ് ബസുകളായി പണ്ട് കുറെ ആളുകള് ഒന്നുരണ്ട് ബസ്സൊക്കെ ആയപ്പോൾ അതിക്കുള്ളിൽ എല്ലാവരും കയറി അങ്ങനൊക്കെ ബസവിടെ എത്തുമ്പോത്തിന് കുറെ സമയമാകും ഇപ്പോൾ കുറെ ബസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു ബസ്സ് പോയി സ്പീഡില് പോയിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ എത്താണ്ട് ഇപ്പം ബസ്സങ്ങട്ട് പോയാല് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വേറൊന്ന് വരാനുണ്ട് അങ്ങനെ ഒക്കെയായി പണ്ടത്തെ കാലത്തൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ യാത്രാസൗകര്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടി പണ്ടതൊക്കെ ഒരു സ്ഥലത്തേയ്ക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര ഇടങ്ങേറുള്ള ഒരു കാര്യമായിരുന്നു കാര്യമന്നു കാളവണ്ടിയാണെങ്കിലും വേറെ ഉള്ള ബസ്സുകള് ആണെങ്കിലും ഒക്കെ ആശ്രയിച്ച് നമ്മൾ വിചാരിച്ച സ്ഥലത്തേയ്ക്ക് എത്തണമെങ്കില് കുറെ സമയങ്ങള് പിടിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല പെട്ടന്ന് നമുക്ക് പോകാൻ വിചാരിച്ച സ്ഥലത്തേയ്ക്ക് എത്താൻ പറ്റും കാലം മാറുന്നതനുസരിച്ച് ഓരോന്നും നമ്മളിങ്ങനെ ഡവലപ്പായി വരികയാണ് വണ്ടിയായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും കാറും ജീപ്പും സൗകര്യങ്ങളൊക്കെ കൂടുന്നതിനൻസരിച്ച് എല്ലാം നമ്മള് വേണ്ട രീതിയില് പെട്ടെന്ന് എല്ലാം എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്